സാങ്കേതികവിദ്യ നമുക്കുചുറ്റും ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അതിലെ ഇപ്പോൾ നമുക്ക് പണ്ടത്തെപ്പോലെ സൗഹൃദങ്ങൾ ഉണ്ടാക്കാൻ അത്ര വലിയ പണിയൊന്നുമില്ല പണ്ട് നമുക്ക് ഒരു ഗ്രാമപ്രദേശങ്ങളിൽ ഉള്ള ആൾക്കാരുമായിട്ടുള്ള സൗഹൃദം അല്ലെങ്കിൽ കൂടിപ്പോയാൽ നമുക്ക് രണ്ട് അടുത്തുള്ള ഗ്രാമങ്ങളിലുള്ള കൂട്ടുകാർ ഉണ്ടാകും അങ്ങനെയൊക്കെയാണ് പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല നമുക്ക് ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ നമുക്കിപ്പോ ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം അങ്ങനെയുള്ള സോഷ്യൽ മീഡിയ ആപ്പുകൾ ഒക്കെ വഴി ഏത് പ്രദേശവും ലോകത്തിലെ തന്നെ ഏത് നാട്ടിലുള്ള ആൾക്കാരെയും വേണമെങ്കിൽ നമുക്ക് ഇതിലൂടെ ഫ്രണ്ട്ഷിപ്പ് അതായത് സൗഹൃദം സൃഷ്ടിക്കാൻ പറ്റുന്നുണ്ട് പിന്നെ നമുക്ക് അവിടെയുള്ള പണ്ടത്തെ എന്താ പറയാ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം വേറെ എവിടെയെങ്കിലും നടന്നു അപ്പോൾ അതു നമുക്കിവിടെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും അതായത് പെട്ടെന്ന് അറിയാൻ പറ്റും ഇതൊക്കെ ഇങ്ങനൊക്കെ നോക്കുകയാണ് പറയുമ്പോൾ നമുക്ക് സോഷ്യൽ മീഡിയ നല്ലൊരു ഉപകാരം തന്നെയാണ് ചെയ്തിരിക്കുന്നത് പക്ഷേ അതിൽ വരുന്ന നമുക്ക് ഈ സോഷ്യൽ മീഡിയ കൊണ്ടുണ്ടാകുന്ന ഒരു ചെറിയ പ്രശ്നം എന്തുണെന്നു പറഞ്ഞാൽ കുട്ടികൾ പണ്ടത്തെപ്പോലെ ഇപ്പോൾ കളിക്കാനുള്ള ഒരു ടെൻഡൻസി ഇല്ല എല്ലാവർക്കും മൊബൈൽ ഉപയോഗിച്ച് കളിക്കാനുള്ള ഇതാണ് അപ്പോൾ അതുകൊണ്ടുതന്നെ അവരുടെ ഫിസിക്കൽ ആയിട്ടുള്ള ബോഡി കണ്ടീഷൻസിനെ അതു നല്ല മാറ്റം വരുത്തും കായികമായിട്ട് അവർക്കൊരു എന്താ പറയുക കായികമായിട്ട് അവർക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു ഇത് ഉണ്ടാകില്ല പിന്നെ നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെ മാത്രം ജീവിക്കാൻ പറ്റില്ല എന്തെങ്കിലും ഒരു പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെ നേരിടണമെന്ന് അങ്ങനത്തെ കുറെ കാര്യങ്ങൾ അതൊന്നും അവർക്കറിയില്ല കാരണം അവർക്ക് ഈ ഒന്ന് ഈ മൊബൈലിൽ ഉള്ള കാര്യങ്ങൾ മാത്രമേ അറിയുകയുള്ളൂ അതുകൊണ്ടുതന്നെ അവർക്ക് ചില പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോൾ അവർ തെറ്റായ തീരുമാനങ്ങൾ എടുക്കുക അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കണ്ടുവരുന്നുണ്ട്